ആ ഹലോ ആ ചേട്ടാ ഞാൻ ഒരു കുഴിമന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുറച്ചുനേരത്തെ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ഞാൻ എൻറെ പഴയ അഡ്രസ്സ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നതേ അപ്പോൾ ആൾപ്പോ അവിടെ പഴയ അഡ്രസ്സിലാണ് എത്തിനിൽക്കുന്നത് അത് അതല്ല എൻറെ അഡ്രസ്സ് പുതിയതാണ് അഡ്രസ്സ് ഞാൻ പഴയത് കൊടുത്തിട്ടുണ്ടായിരുന്നത് രാമൻ കൊടുതിരിപ്പുള്ളി പാലക്കാടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നതു ഇപ്പോൾ നിലവില് നമ്മള് അവിടെയല്ല താമസിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ താമസിക്കുന്ന അത്താലൂര് കൊടുതിരി പുള്ളിയിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇതൊന്ന് മാറ്റിയിട്ട് നിങ്ങളീ പുതിയ അഡ്രസ്സിലോട്ട് ഒന്ന് കൊണ്ടുവരണം അതിനിപ്പോന്താ ചെയ്യാൻ പറ്റുക ഇപ്പോൾ അതെയതെ അതേ പുതിയ അഡ്രസ്സിൽ പഴയ അഡ്രസ്സിൽ വേണ്ട അത് അതൊന്ന് ചേഞ്ച് ചെയ്യണം അത് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് പുതിയ അഡ്രസ്സിലേക്ക് ഒന്ന് ഭക്ഷണം എത്തിച്ചാൽ വളരെയധികം ഉപകാരം ഉണ്ട് ആ നോട്ട് ചെയ്തോളൂ നോട്ട് ചെയ്തോളൂ ഇത് തന്നെ ആ ആ ആ പുതിയ അഡ്രസ്സ് ലോട്ട് ആ അ ആ